ഇന്ത്യയുടെ തിലിന്ത്യ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ആദ്യം അതിനുമുമ്പേയാണ് നമ്മള് ചെറിയ ചെറിയ രാജാക്കന്മാരായിരുന്നു ഇന്ത്യയെ ഭരിച്ചിരുന്നത് അതു ബ്രിട്ടീഷുകാരു വന്ന് അവരുടെ അധീനതയിലാക്കി അപ്പോള് ഇന്ത്യക്കാരെയെല്ലാം ഭയങ്കര അവരുടെ അടിമകളാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മള്ക്കു പിന്നെ മഹാത്മാഗാന്ധിയുടെ പിന്നെ സമരം സമരം ചെയ്ത് നമുക്ക് കിട്ടിയത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരെ എല്ലാം ഇവിടെനിന്ന് ഓടിച്ച് അതുതന്നെയാണ് പിന്നെ ഇന്ത്യയുടെ ചരിത്രം അന്നാണ് നമുക്ക് ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെ സ്വതന്ത്രമായിട്ടു പ്രഖ്യപിച്ചത് പിന്നെ ചരിത്ര അതില് നമ്മള് ഭയങ്കരമായി എന്താണ് രൂപപ്പെടുത്തിയത് എന്നുവച്ചാല് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ച ജനുവരി ഇത് ഇരുപത്തിയാറല്ലേ അതു നമുക്കത് ഒരു ഭരണഘടന ഉണ്ടാകുന്നതു വലിയ സന്തോഷരമായിത്തന്നെ ഉള്ളൊരു ഇതല്ലേ ആദ്യമായിട്ടുള്ളൊരു ചരിത്ര സംഭവമല്ലേ റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ ഇന്ത്യ മാറുന്നത് അതു തന്നെയാണ് ഏറ്റവും നല്ല ഒരു നിമിഷം ചരിത്ര നിമിഷം തന്നെ പിന്നെ ഇഷ്ടപ്പെട്ട സമരനായകൻമാരില് ഞാൻ ഒന്നാമതു തന്നെ ഗാന്ധിജി മഹാത്മാഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ സമരംകൊണ്ടാണല്ലോ നമ്മള്ക്കു സ്വാതന്ത്ര്യം കിട്ടിയത് അതിനോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റു ജവാഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേല് ഭഗത്സിംഗ് ഡോക്ടർ അംബേദ്ക്കർ പിന്നെ ജാൻസിറാണി എല്ലാം അങ്ങനെയുള്ള കുറേ നേതാ മ്മടെ സമര നമുക്ക് പറയത്തക്ക നേതാക്കന്മാരാണല്ലോ